ആ ഒരു ഒരു വാടകയ്ക്ക് റൂമ് നോക്കാനാണ് വിളിച്ചത് ആ റെൻറ്റിന് ആ അതെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടൊന്നും പാടില്ല ഓ ഒരു മൂവായിരം ഉർപ്യേൻറ്റേനൊക്കെ ആവാ

എനിക്ക് അങ്ങനെ പിന്നെ സിറ്റീന്ന് ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ വണ്ടി വെക്കാനും പിന്നെ വാഹനങ്ങൾ പോകാനും ഉള്ള സൗകര്യം ഒക്കെയുള്ള സ്ഥലം ആയിരിക്കണം

ഒരു എഴിനൊക്കെ കിട്ടുമോ ആ മതി പിന്നെ അടുത്തടുത്ത് അധികം വീടൊന്നും പാടില്ല പിന്നെ സമാധാനത്തിൽ ആ

ഒരു വീടായിട്ട് കിട്ടിയാലും മതി ഒരു ഒരു വീടായിട്ട് കിട്ടിയാലും മതി ആ വീടായിട്ട് ആണ് ഓ രണ്ട് നിലയൊന്നും വേണ്ട ഒറ്റ നിലയിൽ മതി നമ്മൾ വാടകക്ക് താമസിക്കാനല്ലേ ആ മതി വേണം വേണം

അതിനൊക്കെ എത്രയാണ് പറയുന്നത്

ആ ആ

ഒറ്റ വീടാണ് ആ ആ ആ ആ വെള്ളം വെള്ളം സൗകര്യം ഉണ്ട് ആ ആ ആ ആ കിണറുണ്ട് ആ ഏഹ് കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാവോ

ആ ആ ആ ആ ആ ആ ആ നിർത്തി ആ ആ ആ

ആ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ആ ആ അതെ

എന്നാൽ നോക്കി അവരോട് പറഞ്ഞ് റെഡി ആക്കി വെക്ക് ഞാൻ വരാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ആ ഓ ഓ ഓ ഓ ആ ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ആ ആ ആ ആയിക്കോട്ടെ ആ ശരി